തൊഴിലുറപ്പെന്നു പറയുന്നത് ഒരു പ്രധാന ഒരു എന്താ പറയാ ഒരു ജോലി ആണ് നമ്മുടെ സംസ്കാരത്തിൻറെ ഒരു തൊഴിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം തൊഴിലുറപ്പ് തന്നെ ആയിരിക്കും തൊഴിലുറപ്പ് ഒരു പത്ത് പത്ത് പാസ്സായ ഏതാൾക്ക് വേണമെങ്കിലും പത്ത് പാസ്സാവണമെന്നില്ല ഒരു പ്രായപരിധിയിലുള്ള ഏതാൾക്ക് അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും തൊഴിലുറപ്പ് തെരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ അവർ കരാറുകൾ വെച്ചിട്ട് ജോലി ചെയ്തുകൊടുക്കാറുണ്ട് അവർ വൃത്തിയാക്കുക പിന്നെ റോഡ് വൃത്തിയാക്കുക പിന്നെ ക കാടുകൾവെട്ടുക അങ്ങനത്തെ കുറെ ഇതുണ്ട് അതിനനുസരിച്ച് അവർക്ക് നിശ്ചിതമായ ഒരു തുകയും അവർക്ക് കിട്ടുന്നുണ്ട് അവർക്ക് അവരുടെ ജോലിക്കനുസരിച്ചുള്ള പൈസ അവർക്ക് കിട്ടുന്നുണ്ട് വൈകുന്നേരം വരെയുള്ള പണികളാണ് അതിൽഎല്ലാ സ്ത്രീകൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റും അങ്ങനെ ഇന്ന വയസ്സ് വരെ എന്നൊന്നും ഇല്ല